കുറേ കാലങ്ങൾക്ക് മുൻപ് നമുക്ക് നമ്മുടെ നാട്ടിലോ വിദേശത്തോ ജീവിക്കുന്ന നമ്മുടെ ബന്ധുവിനെ ഒന്ന് വിളിക്കണമെങ്കിൽ ഒരു ടെലിഫോൺ ബൂത്ത് തന്നെ തേടി പോകേണ്ടി വരുമായിരുന്നു പക്ഷേ ഇന്ന് കാലം മാറിയപ്പോൾ എല്ലാവർക്കും സുഖപ്രദമായ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് പണ്ട് വിദേശത്തുള്ളവരെ വിളിക്കാൻ പൈസ കൊടുക്കണമായിരുന്നു എന്നാൽ ഇന്ന് പൈസ ചിലവൊന്നുമില്ലാതെ നെറ്റ് കോൾ വഴി വെറും കോൾ അല്ല വീഡിയോ കോൾ വഴി നമുക്ക് നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വിളിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് മൊബൈൽ ഫോണിന്റെ ഒരു ഉപയോഗം മാത്രമാണ് വേറെയും പല ഉപയോഗങ്ങൾ ഈ ഫോണിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ല ഉദാഹരണമായി പറയാൻ പറ്റുന്നത് കൊറോണ സമയത്ത് നമ്മൾ എല്ലാവരും അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് വേറെ പല ആപ്പുകൾ ഉണ്ട് നമ്മുടെ ഫോണിൽ അതിൽ ഒന്നാണ് യൂട്യൂബ് എന്ന് പറയുന്നത് ഈ യൂട്യൂബിലൂടെ ലോകത്തെ എന്തും നമുക്ക് പഠിക്കാനായിട്ട് നമുക്കൊരു അവസരം തരുവാണ് കൊറോണ സമയത്ത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് ഈ പറയുന്ന ബേക്കിംഗ് ആയാലും എംബ്രോയ്ഡറി ആയാലും തയ്യലായാലും പിന്നെ കുറേ വ്യായാമങ്ങളും ഞാൻ യൂട്യൂബ് വഴി തന്നെയാണ് പഠിച്ചത് ഇത് എൻ്റെ കാര്യം മാത്രമല്ല ലോകത്ത് എല്ലാവരും ലോക്ക്ഡൌൺ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ എല്ലാവരും ചെയ്തതും ഇത് തന്നെയായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് കൊറോണ ലോക്ക്ഡൌൺ ആയിരുന്ന സമയത്ത് പലരും കേക്ക് ബേക്ക് ചെയ്യാനും അതുപോലെ പല പല കുക്കിങ്ങും പാചകം പഠിച്ചത് ഈ യുട്യൂബ് വഴി തന്നെയാണ് ഞാൻ അന്ന് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിച്ച് ഞാൻ എൻ്റെ സ്കൂളിലേക്കുള്ള ആവശ്യങ്ങൾക്ക് പഠിച്ചതും യൂട്യൂബിലൂടെ തന്നെയാണ് യൂട്യൂബിലെ ടീച്ചേഴ്സ് ഞാൻ പറയുവാണെങ്കിൽ ഏറ്റവും നന്നായി തന്നെയാണ് ക്ലാസ് എടുത്തതും ഇനി ഇപ്പം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് വീണ്ടും റീക്യാപ്പ് ചെയ്ത് കാണാനുള്ളൊരു അവസരവും എനിക്ക് യൂട്യൂബിൽ കിട്ടിയായിരുന്നു ഈ യൂട്യൂബ് മാത്രമല്ലാതെ ലോക്ക്ഡൌൺ സമയത്ത് രണ്ട് വർഷത്തോളം കുട്ടികളുടെ പഠിപ്പ് ഒരു വലിയ ചിന്ത ആയിട്ട് തന്നെ കിടക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് പുതിയ രീതി നമുക്കെല്ലാവർക്കും നമ്മുടെ മുൻപിലേക്ക് വന്നത് ഈ ഓൺലൈൻ ക്ലാസ് ഇല്ലായിരുന്നെങ്കിലോ കുട്ടികളെ രണ്ടു വർഷമാണ് വെറുതെ പാഴായി പോവാ പോകുമായിരുന്നത് അങ്ങനെ പോകുമായിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഒരു കോളേജിലേക്ക് എത്തത്തില്ലായിരുന്നു പക്ഷേ അന്ന് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ പിന്നെ അതുമായിട്ട് പൊരുത്തപ്പെട്ടുവന്ന് പഠിച്ച് പ്ലസ് ടു പാസ് ആയി ഇപ്പോൾ വീണ്ടും ഒരു കോളേജിലേക്ക് എത്തി നിൽക്കുന്നു അന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ എൻ്റെ ടീച്ചേഴ്സ് പഠിപ്പിച്ചതിനു പുറമേ ഞാൻ യൂട്യൂബിലെ എൻ്റെ അധ്യാപകർ പഠിപ്പിച്ചതും ഞാൻ കേട്ടിരുന്നു അതുകൊണ്ടൊക്കെത്തന്നെയാണ് എനിക്ക് പരീക്ഷ നല്ല രീതിയിൽ പാസ് ആവാൻ പറ്റിയതും ഇതുകൂടാതെ നമുക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഓരോ കട കയറിയിറങ്ങണമായിരുന്നു ഒരു സാധനം വാങ്ങാൻ പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ നിന്ന് നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാനുള്ള ഓരോ ആപ്പുകൾ നമ്മടെ ഫോണിൽ ഉണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന രീതിയിൽ നമുക്ക് എന്തും എവിടെ നിന്നും വേണമെങ്കിലും വാങ്ങാൻ പറ്റും അങ്ങനെ കുറച്ച് ആപ്പുകളാണ് ആമസോണും ഫ്ലിപ്കാർട്ടും മീഷോയും എല്ലാം ഇപ്പോഴും ഞാൻ അത് ഉപയോഗിക്കുന്നുമുണ്ട് കൊറോണ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ പോലും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓൺലൈൻ മാർഗം വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പം കോളേജിൽ എത്തിയപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാനും വീട്ടിലേക്ക് ടീച്ചേഴ്സ് തരുന്ന ഓരോ വർക്ക് കമ്പ്ലീറ്റ് ചെയ്യാൻ വീട്ടിൽ സഹോദരന്മാർ ഇല്ലാത്തവർക്ക് ഏറ്റവും നല്ലൊരു സഹായി തന്നെയാണ് ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണിലൂടെ എനിക്ക് ലോകത്ത് എന്തും എൻ്റെ ക വിരൽത്തുമ്പിൽ കിട്ടുന്നുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ പ്രോജെക്ടിലേക്കും എൻ്റെ വർക്കിലേക്കും കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മാർക്ക് അത് എനിക്കും സന്തോഷം തരുന്നവയാണ് എനിക്ക് മാത്രമല്ല എൻ്റെ പി മാതാപിതാക്കന്മാർക്കും അത് സന്തോഷം തരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു ഫോൺ കൊണ്ട് എനിക്ക് ഉപകാരങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഒരു ഫോണിൽ ഉപകാരങ്ങൾ മാത്രമല്ല അതിന്റെ മറുവശം നോക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നോക്കിയും കണ്ടും നമ്മൾ ചെയ്താൽ അത് അത്ര വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ഒന്നും പെട്ടെന്ന് നോക്കിയും കണ്ടും ചെയ്യാതിരിക്കുമ്പഴാണ് ഒരു ഫോൺ അത് നമുക്കൊരു ശത്രുവായി മാറുന്നത് അപ്പോൾ ഇനി നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു